കേരള സംസ്ഥാനത്ത് പതിനാല് ജില്ലകൾ ഉള്ളടുത്ത് പതിനാല് ടൈപ്പിലുള്ള ഭാഷകളാണ് അത് ഇപ്പം ഇങ്ങ വടക്കേ വടക്കുള്ള ഇങ്ങേ അറ്റ അറ്റത്തേക്കുള്ള തെക്കുള്ള പാർട്ടികൾക്കും ഏറ്റോം വടക്കുള്ള പാർട്ടികൾക്കും അവർ അത് അത് അത് അതിനെ ഉൾകൊള്ളാൻ പക്ഷേ കുറച്ച് പ്രയാസം ഉണ്ട് എങ്കിലും മധ്യ കേരളത്തിൽ വരുമ്പളത്തേക്ക് അത് അച്ചടി ഭാഷയാണ് പക്ഷേ അത് കോട്ടയം ആ ഭാഗത്തൊക്കെ നല്ല അച്ചടി ഭാഷയുണ്ട് അത് ചിലപ്പോൾ അത് കോമണായിട്ടെല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു രീതിയാണ് അല്ലാത്തതൊക്കെ കുറച്ച് പ്രയാസം ഉണ്ട് പക്ഷേ എങ്കിലൂം ഉൾക്കൊള്ളും അത് വേറെ പക്ഷേ ഇത് അത് എന്താണ് എന്ത് പറയെണ്ടത് ഇപ്പോൾ ആൾക്കാർക്ക് ഒരേ ഒരേ സ്ഥലത്തുള്ള ഒരേ ഭാഷകൾ അവർ അല്ല അവർ അത് അതിൽ കണ്ടിന്യൂ ചെയ്തു പോണു പക്ഷേ ഇത് ഒരു ഒരേ ഒരു ഭാഷ തന്നെയാണ് ഒരൊറ്റ രീതി തന്നെയായിരിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു രീതിയായിരുന്നു ബെസ്റ്റ് പക്ഷേ എങ്കിലും ഒരു നമുക്ക് ഇപ്പം കാണുന്നത് എത്രയാണ് ഇപ്പം ഈ പതിനാല് ടൈ ടൈപ്പുള്ള ആൾക്കാർ തിരുവനന്തപുരത്ത് ഒരു ഭാഷ കാസർകോടൊരു ഭാഷ പക്ഷേ ഒരു ഒരു രീതി പക്ഷേ ആ ഒരു രീതി ഇത് ചിലപ്പോൾ എല്ലാവർക്കും ഉൾകൊള്ളാൻ ഇപ്പം കോഴിക്കോട് ഭാഷ ഇപ്പം ചിലപ്പം കോട്ടയംകാർക്ക് കുറച്ച് പ്രയാസമുണ്ട് അതുപ്പോലെ തന്നെ കാ കാസർകോടുള്ളവർക്ക് ഉള്ള ഭാഷ ഈ കോഴിക്കോട് ഈ കോട്ടയത്തുള്ളവർക്ക് പറയാനായിട്ട് പ്രയാസം ഉണ്ടാവും അങ്ങനെ അത് ആ രീതി ആണ് ഭാഷയായിട്ടുള്ള വ്യത്യാസം ഞാൻ കാണുന്നത് പക്ഷേ അല്ലെ പിന്നെ നമ്മൾ കുറച്ച് അത് ഈ നാട്ടുമ്പുറത്തൊക്കെ പിന്നെ കുറച്ച് കറങ്ങി നടന്ന് നടക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ അവർക്ക് ചിലപ്പം സാധിച്ചെന്ന് വരും അത് ഉൾകൊള്ളാൻ പക്ഷേ ആദ്യമൊക്കെ പ്രയാസമായിരിക്കും അങ്ങനെ അല്ലെ പിന്നെ അത് കുറച്ച് അങ്ങോട്ട് പോയി പോയി പോയി കൊണ്ടിരിക്കുമ്പളത്തേക്ക് ഇപ്പോൾ അവരുടെ അവരുടെ അവിടുത്തെ ആൾക്കാരും ഇവിടുത്തെ ആൾക്കാരായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സബർക്കം സമ്പർക്കം കാണിക്കുമ്പളത്തേക്ക് ഒക്കെ മനസ്സിലാകും പക്ഷേ ഇപ്പം ഈ പതിനാല് രീതിയിലുള്ള നീട്ടിപ്പെറുക്കിയുള്ള സംസാരങ്ങളുണ്ട് ആ സംസാരം അത് നല്ലതാണ് ആണെന്ന് തോന്നുന്നില്ല പക്ഷേങ്കിൽ ഉൾകൊള്ളുന്നു അത്രെയുള്ളു